എൻ്റെ ചെറുപ്പ കാലത്ത് നമ്മൾ കു കൂടുതലും പല ചരിത്രങ്ങൾ നമ്മൾ കേട്ടും ക അറിഞ്ഞും കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞും ഉള്ള ഒത്തിരി ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഏറ്റോം കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു ഒരു ഒന്നാണ് വൈക്കം സത്യാഗ്രഹമാണ് ഈ വൈക്കം സത്യാഗ്രഹംന്ന് പറയുന്നത് വൈക്കം മഹാദേവക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചായിരുന്നു വൈക്കം മഹാദേവക്ഷേത്രമെന്ന് പറയുന്നത് നാനാജാതി മതസ്ഥർ വന്നും വന്ന് വണങ്ങി പോകുന്ന ക്ഷേത്രമായിരുന്നല്ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം അവസാനത്തോട് കൂടി തുടങ്ങിയ സത്യാഗ്രഹം ഏകദേശം ഏകദേശം അറുനൂറ്റി മൂന്ന് ദിവസത്തോളം നീണ്ട് നിന്ന് എന്ന് വേണം എന്ന് പറയാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഉദ്ദേശം അയി അയിത്തത്തിനെതിരെ ആയിരുന്നു അയിത്തത്തിനെതിരെ പോരാടുക എന്നതായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള പൊതു വഴി വഴി വഴിയിലൂടെ സത്യാഗ്രഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാത്രന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം യഥാ യഥാസ്ഥികരുടെ എതിർപ്പിനെ മറികടന്ന് അടിച്ചമർത്തപ്പെട്ട വിവാദ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം മഹാദേവക്ഷ വൈക്കം സത്യാഗ്രഹം ഈ സത്യാഗ്രഹത്തിൻ്റെ ശ്രീ നാരായണഗുരു മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖരുടെ പിന്തുണ ഉണ്ടായിരുന്നു